പെട്രോളിൻ്റെ വിലവർദ്ധന തീർച്ചയായിട്ടും എൻ്റെ ബൈക്ക് യാത്രയെ അതുപോലെ ദൈനംദിന ജീവിതത്തെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നു വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ടൊക്കെയെന്നു പറയുമ്പോൾ അൻപത് നാൽപത് രൂപ അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ കിട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ജോലിക്കു പോകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇപ്പം പെട്രോളിൻറെ വില നൂറ് രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് രൂപയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെയ്ലി യൂസ് ചെയ്യുമ്പം ഡെയ്ലി നമ്മളിത് ഒരു എനിക്ക് ഞാനൊക്കെ ദൂരത്തോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ജോലിക്കു പോകുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഒരു ദിവസത്തെ ട്റാ പെട്രോളിൻ്റെ യൂസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നത് കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ മറ്റ് അതായത് ഇന്നത്തെ എൻ്റെ സാലറിയുടെ ഇതു വെച്ച് എനിക്ക് എൻ്റെ പെട്രോളിൻ്റെ യൂസ് നോക്കുമ്പോൾ പെട്രോൾ ഭയങ്കര ചിലവാണ് മറ്റു സാധനങ്ങൾ മേടിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അപ്പം പെട് ബൈക്ക് യൂസ് ചെയ്യാതെ ബസ്സിനു പോകേണ്ടൊരു ഗതികേടിലോട്ട് ഞാൻ വന്നു മാറിയിട്ടുണ്ട് പണ്ടൊക്കെയെന്നു പറയുമ്പോൾ എനിക്കാ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ബൈക്കിനു പോകുമ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് ജോലിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ബസ്സെന്നു പറയുമ്പം ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതു കൊണ്ട് ചിലപ്പം ബൈക്കിലായിരിക്കും കിടക്കുന്നത് അപ്പം അത്രയും സമയം നമ്മളത്രക്കും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ബസ് ബൈക്കിലൊക്കെയാണെ എന്തെങ്കിലും കാണിച്ചൊരു ഷോർട്ട് കട്ടിൽക്കൂടി ചാടിയങ്ങ് കയറിയാണെങ്കിൽ എനിക്ക് ജോലിക്കു പോകാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടു സാധിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം ഇന്ധനത്തിൻ്റെ ഉപയോഗം പരിസ്ഥിതിക്ക് കാരണമാകുന്നെന്ന് കരുതുന്നുണ്ട് കാരണം പുകമലി മലിനീകരണം പുക മലിനീകരണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇന്നത്തെ ഇന്നൊക്കെ ഒരാളുടെ കയ്യിൽ വാഹനമല്ലാത്ത ഒരാൾ ഭയങ്കര കുറവാണ് ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ ആൾക്കാർക്കു മാത്രമേ വാഹനം സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തതു കാണത്തുള്ളൂ ബാക്കി എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനം ഉള്ള ആളുകളാണ് ആ എല്ലാ ആളുകളും തന്നെ സ്ഥിരമായിട്ട് ഡെയ്ലി റോട്ടിലൂടെ ഇറക്കുന്ന ആളുകളായിരിക്കും അല്ലായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഇന്ന് പരിസ്ഥിതിക്ക് അതു ഭയങ്കരമായിട്ട് ഹാനികരം ഉണ്ടാക്കുന്നുണ്ട് പുക മലിനീകരണം എന്നു പറയുന്നത് ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഡെയ്ലി ഇത് നമുക്ക് കാണാൻ സാധിക്കും ന്യൂസൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡെൽഹി പോലെയുള്ള രാജ്യങ്ങളിൽ എന്നും തന്നെ ഇതു തന്നെയാണ് ഈ ഇന്ദനത്തിൻ്റെ അതായത് പുക മലിനീകരണം മെയിൻ ഒരു വാർത്ത തന്നെയായിട്ട് മാറിയിട്ടുണ്ട് ഡെല്ലി എറണാകുളമൊക്കെയാണെങ്കിലും പുക എറണാകുളമാണ് നമുക്ക് കണ്ടതിൽ ഏറ്റവും വലിയൊരു സിറ്റിയായിട്ട് പറയാനുള്ളത് അവിടെയൊക്കെ ഡെയ്ലി പോകുന്ന വാഹനങ്ങളുടെ കണക്കൊക്കെ എടുത്തു നോക്കിയാൽ ഇന്ധനമലിനീകരണം ഭയങ്കരമാണ് അത് നമുക്കും അതുപോലെ പരിസ്ഥിതിക്കും ഓസോൺ പാളിക്കൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം നമുക്ക് ഉപയോഗിക്കാതിരിക്കാനും പറ്റത്തില്ല ഉപയോഗിക്കാനും പറ്റത്തില്ലയെന്നു പറഞ്ഞൊരവസ്ഥയിലാണ് ഇന്നു നമ്മൾ ജീവിക്കുന്നത് പണ്ടൊക്കെ